ഹലോ ഇത് അന്നാസ് ഫ്ലവർ ഷോപ്പ് അല്ലേ ആ ചേട്ടാ ഞങ്ങൾ ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ആലപ്പുഴയിൽനിന്നായിരുന്നെ ആലപ്പുഴയിൽ ഞങ്ങളുടെ ഒരു സെൻ മേരിസ് കോളേജിൻ്റെ ഒരു ഫങ്ഷന് ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ അ അത് സ്റ്റേജിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ ഒരു ഭാഗത്ത് ഒരു ആർച്ച് വേണം താഴെ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് ഒരു ആർച്ച് എന്നുള്ള രീതിയിൽ വേണം അപ്പോൾ ആ പറഞ്ഞോ കളർ തീമ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിലായിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു എന്താ നമുക്ക് ഈ കളറിൻ്റെ അല്ലെങ്കിൽ ആ പൂവിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എങ്കിലും അത്യാവശ്യം നല്ലൊരു യെല്ലോ അല്ലെങ്കിൽ യെല്ലോ വിത്ത് വൈറ്റ് അങ്ങനെ വരുന്ന എന്തെങ്കിലും രീതിയിലൊരു എൻട്രൻസിൻ്റെ അവിടെ കൊടുക്കാനായിട്ടാണ് പിന്നെ അതു മാത്രമല്ല ആ കയറുന്ന ആ എൻട്രൻസിന് വെൽക്കം എന്നുള്ള ആ ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ സ്റ്റേജിൻ്റെ ഫ്രണ്ടില് വൈറ്റും പിന്നെ റെഡും വെള്ളയും ചുമപ്പുകൂടെ കൂടിയ ആ ഒരു റോസാപ്പൂ ഒറിജിനൽ തന്നെ വെക്കാം അതെ അതെ അതെ അത് കൂടി അങ്ങനെ വെക്കാനായിരുന്നു പിന്നെ അതല്ലാണ്ട് ഈ എൻട്രൻസിൻ്റെ അവിടെ ആ ഈ സ്റ്റേജിൻ്റെ അവിടുത്തെ എൻട്രൻസിൻ്റെ അവിടെ ഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പം ഇല്ല ബലൂൺ അങ്ങനെ എന്തെങ്കിലും വെച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്താലും കുഴപ്പം ഇല്ല പക്ഷേ നമുക്ക് ഈ സ്റ്റേജ് വരുമ്പഴത്തേക്ക് മസ്റ്റ് ആയിട്ട് ഒറിജിനൽ ഫ്ലവർ തന്നെ വേണം അപ്പോൾ എങ്ങനാന്ന് ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പം എങ്ങനെയാ ഇതൊക്കെ വരുന്നത് ഒരുപാട് ഒന്നും വേണ്ട എന്നാൽ ഒരുപാട് ചീപ്പ് ആയിട്ടും എന്നുള്ള രീതിയിൽ വേണ്ട നമുക്കൊരു മീഡിയം എന്ന രീതിയിൽ തന്നെ കിട്ടി ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നേനെ കാരണം ഞങ്ങൾ സ്റ്റുഡൻറ്റ്സ് ആണ് ഞങ്ങളെ കയ്യിൽനിന്ന് പിരിച്ച് വലിയൊരു എമൗണ്ട് കിട്ടത്തില്ല ഇതുമാത്രം അല്ല നമുക്ക് ഫുഡ് പിന്നെ ഉച്ചക്കത്തെ ഫുഡും നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചുരുക്കിയിട്ട് വേണം സ്റ്റേജ് ഡെക്കറേഷനും ഇതെല്ലാം ചെയ്യാൻ റോസ് രണ്ടായിരം രൂപയ്ക്ക് അല്ല നിങ്ങളുടെ കൂട്ടത്തിൽനിന്ന് അങ്ങനെ നിങ്ങളുടെ ആൾക്കാർ തന്നെ വന്ന് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുമോ അതോ നമുക്ക് ജസ്റ്റ് പൂ മാത്രം വാങ്ങി അങ്ങനെ ചെയ്യാനോ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളാ ആണല്ലേ ആ ആ ഇപ്പോൾ ഇല്ലല്ലേ ആ ഓക്കെ കുഴപ്പം ഇല്ല നിങ്ങൾ ഞങ്ങൾ ഇത് എന്താണെന്നുവെച്ചാൽ അറേഞ്ച് ചെയ്തുകൊള്ളാം പക്ഷേ നമുക്ക് പരിപാടി എന്താ എന്നാണെന്ന് വെച്ചാൽ അടുത്ത വെള്ളിയാഴ്ചത്തേക്കാണ് പരിപാടി അപ്പോൾ ആ ആ ഒരു ദിവസം രാവിലെത്തേക്ക് കിട്ടുകയാണെങ്കിൽ ഒരുമിച്ചു കിട്ടുകയാണെങ്കിൽ വളരെ ഒരു ഇതായിരുന്നേനെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നേനെ ഓക്കെ ഓക്കെ താങ്ക് യൂ സാർ ഞാൻ വിളിക്കാം അപ്പോൾ ഞാൻ രാത്രി രാത്രി സാറിനെ വിളിക്കാം